എവിടെ നിന്ന് വാർത്തകൾ ലഭിച്ചാലും സത്യസന്ധമായ സമൂഹത്തിൽ നന്മകരമായിട്ടുള്ള കാര്യങ്ങൾ ഉക്കൊള്ളിക്കുക എന്നതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് മാധ്യമങ്ങൾ വഹിക്കേണ്ടത് ഇന്ന് പത്രം ടി വി ഓൺലൈൻ വാർത്തകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വളരെയധികം കാര്യക്ഷമതയോടെ ഉള്ക്കൊള്ളാന് പറ്റില്ല കാരണം ഇന്നെല്ലാം റേറ്റ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള കിടമത്സരാണ് പത്രമാധ്യമമാണേൽത്തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം അവയ്ക്ക് കൂടുതൽ പരസ്യങ്ങളും വിഭാവനം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റേറ്റ് കൂട്ടി സാമ്പത്തിക നിലവാരത്തിലും പിന്നെ കുറേ പരസ്യങ്ങൾ കൊടുത്ത് കഴിഞ്ഞാൽ വാണിജ്യ സ്ഥാപനങ്ങളിൽനിന്നുള്ള വരുമാനം വര്ദ്ധിപ്പിച്ചു കൊണ്ടും ഒക്കെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ള ഒരു ഒരു മുൻ മാനദണ്ഡമാണ് മാധ്യമം ശരിക്കും യഥാര്ത്ഥത്തിലുള്ള കൂടുതൽ സാമൂഹികപരമായിട്ടോ വിദേശപരമായിട്ടോ രാജ്യാന്തരപരമായിട്ടോ ഉള്ള കാര്യങ്ങള് വാർത്തകൾ വളരെ ചുരുക്കിക്കൊണ്ട് ചുരുക്കുന്നൊരു രീതിയാണ് ടിവിയുടെ മേഖലയിലേക്ക് വന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്നതും വളരെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽനിന്ന് വാർത്തകൾ ചമഞ്ഞെടുക്കുക അവയ്ക്കിടയിൽ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ പരസ്യ രംഗത്ത് കൂടുതൽ നിൽ നിലവാരം സൃഷ്ടിച്ച് ജനങ്ങളെ ചതിക്കുഴിയിൽ രീതിയിലുള്ള പ്രവണതകളിലേക്കാണ് പരസ്യ മേഖലയ്ക്ക് കൂടുതൽ സാധ്യതകൾ സാധ്യതകൾക്കടുത്തുകൊണ്ട് ഒരു വാണിജ്യപരമായ രംഗത്തേക്ക് മാത്രമാണ് യഥാർത്ഥ വാർത്തകൾ ഒരു മാധ്യമങ്ങൾക്കും സമൂഹത്തിന് മധ്യേ എത്തിക്കപ്പെടാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇതുകൊണ്ട് ജനങ്ങൾ പല സലത്തുനിന്ന് കിട്ടുന്ന വാർത്തകൾ സ്വന്തം അയൽപ്പക്കത്ത് നടന്ന പോലൊരു സംഭവം ആണേലും പല മാധ്യമം പല രീതി ചിത്രീകരിക്കുമ്പോള് അവർക്ക് ഏതാണ് ശരിയെന്ന് പോലും മനസ്സിലാക്കാൻ മേലാത്ത അന്താളിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മാധ്യമങ്ങൾ കടന്നുപോകുന്നത് അതുകൊണ്ട് അത് അതുകൊണ്ട് ഈ സമൂഹത്തിന് കൂടുതൽ പ്രചോദനമാകുന്ന വാർത്തകൾ നല്കിക്കൊണ്ട് ഒരു ഒരു പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെത്തന്നെ കൂടുതൽ കൂടുതൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുവാൻ ഈ മാധ്യമരംഗത്തുള്ളവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഒന്നോ രണ്ടോ അല്ലേൽ മൂന്ന് നാല് മാധ്യമം പത്ര മാധ്യമങ്ങളുണ്ടായിരുന്നെങ്കിൽ അവർ യഥാർത്ഥമായ കാര്യങ്ങളാണ് ഒരേ ചാനലിലൂടെ ഒരേ വാർത്തവായനയത്തിലൂടെ തന്നെ സമൂഹത്തിന് കാഴ്ചപ്പാട് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള വാർത്തകൾ തന്നു കൊണ്ടാണ് ഓരോ മാധ്യമങ്ങൾ മുന്നോട്ട് വന്ന് സമൂഹത്തിൽ ഉള്ള ആരാജകത്തത്തിനെതിരെ ഒരു മാധ്യമങ്ങളും അതിൻ്റെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല കാരണം അവരുടെ വാണിജ്യമായ മാധ്യമ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെ നടത്തിക്കൊണ്ട് പോകുന്നതിനാണ് അവർ കൂടുതൽ മൂല്യം കാണുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭവത്തെ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം സമൂഹത്തിന് മുമ്പേ കാണിക്കുമ്പോൾ അതിനെ മറ്റൊരു വഴിയിലേക്ക് ദിശ തിരിച്ചിവിടുവാൻ വരെ വരെ മുന്നതിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഇടപെടലുണ്ടാവുകയും അതുകൂടി സമൂഹത്തിലേക്ക് യഥാർത്ഥ കഥ എന്താണെന്ന് എത്തിച്ച് തരാൻ സാധിക്കുന്നില്ല നമുക്കറിയാം ഇന്നിപ്പോൾ കൂട്ടക്കൊലകളും അടികളും തല്ലുകളും കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രവണതകളും ബലാത്സംഗങ്ങൾ പോലുള്ള ഒരുപാട് അനാശാസ്യ പ്രവർത്തനങ്ങളുടെ ഒരു അധോലോകം സൃഷ്ടിക്കുന്നതിലൂടെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തെടുക്കുന്നതിനാണ് മാധ്യമങ്ങൾ കൂടുതൽ അത് ജനങ്ങളിലേക്ക് ശ്രദ്ധ എത്തിക്കുന്നതിനാണ് കൂടുതൽ ഇപ്പം ഇത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആണ് മാധ്യമങ്ങൾ ശ്രദ്ധ തിരിക്കുന്നത് അതിന് പകരം ഇതിനെയൊക്കെ നിയമപരമായി നേരിടുന്നതിനും ഓരോ തിന്മക്കെതിരെ നിന്ന് പോരാടിക്കൊണ്ട് സമൂഹത്തിന് നല്ലൊരു പ്രചോദനം നൽകുന്നതിനുമായി മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതിലാണ് എനിക്ക് പറയാനുള്ളത്